കൂടുതൽ കൂടുതൽ ദിവസവും പുറത്തു പോകേണ്ടിവരുമ്പോൾ ചെടികളുടെ കാര്യം ഓർത്ത് വളരെ ദുഃഖം തന്നെയാണ് ചെടികളെ ആർക്ക് ഏൽപ്പിക്കണം ഏൽപ്പിച്ചാൽ ചെടികള് ഒരുപാട് നല്ലോണം നോക്കുമോ അതോ അലസത കാണിക്കുമോ എന്നെല്ലാം ആലോചിച്ച് വളരെ ടെൻഷനാണ് എന്നിരുന്നാലും പണിക്ക് ആളെ വെക്കാറാണ് പതിവ് ഒരുപാട് ദിവസം മാറിനിൽക്കുമ്പോൾ ചെടിക്ക് വെള്ളമൊഴിക്കുകയും പുല്ല് പറിക്കുകയും മറ്റ് കാര്യങ്ങളുമായിട്ട് നോക്കി നടത്താൻ ജോലിക്ക് ആളെ വെക്കാറാണ് പതിവ് അങ്ങനെ ജോലിക്ക് ആളെ വെച്ച് പോകുമ്പോഴും നമുക്ക് പോയസ്ഥലത്തു മനഃസമാധാനം കിട്ടില്ല അവിടെ നിന്ന് ചെടികൾക്ക് എന്തായി എന്തായി എന്നാലോചിച്ച് വളരെ അസ്വസ്ഥനാവുകയാണ് പതിവ് ചെടികൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെത്തന്നെയാണ് നോക്കുന്നത് അവയ്ക്ക് സമയത്തിന് വെള്ളവും വളവും പരിപാലനവും കൊടുത്തില്ലെങ്കിൽ അവ നശിച്ചുപോകും അതുകൊണ്ടു തന്നെ ദൂരെ യാത്ര ചെയ്യുമ്പോൾ ചെടികളെക്കുറിച്ചുള്ള ആവലാതി ഒഴിഞ്ഞ് പോവാറില്ല പരമാവധി ദൂരയാത്രകൾ ഇതിനുവേണ്ടി ഒഴിവാക്കുമെങ്കിലും ചില അനിവാര്യമായ യാത്രകൾ ചെയ്യാണ്ടിരിക്കാൻപറ്റില്ലല്ലോ അത്തരം സാഹചര്യങ്ങളിൽ ഒരു ജോലിക്കാരനെ വെക്കാറാണ് പതിവ്